മാര്ച്ച് മാസത്തിൽ ഇത് ജൂണ് മാസം മഴ ഉണ്ടെങ്കിലും അതു നല്ല ഒരു പൊളിച്ചമായിച്ചപ്പയങ്കരമായ മഴ ആണെങ്കിൽ അതു തന്നെയായിരിക്കും വെള്ളപ്പൊക്കവും പിന്നെ നമ്മ് വീടിന്റെ പരിസരമെല്ലാം ഒഴുകി മണ്ണൊലിച്ചു പോകും പിന്നെ റബ്ബർ റബ്ബർ വെട്ട് റബ്ബർ വെട്ടി പാല് ഒന്നും എടുക്കാന് പറ്റത്തില്ല കൊച്ചുങ്ങള്ക്കെല്ലാം ഇടക്കിടയ്ക്കസുഖമായിരിക്കും പിന്നെ നമ്മുടെ എന്താ കാലാവസ്ഥയനുസരിച്ച് നമ്മുടെ ഭക്ഷണങ്ങള് ക്രമീകരിക്കാന് പറ്റത്തില്ല അങ്ങനെ ചക്ക മാങ്ങ ഇതെല്ലാം ഉള്ള സമയം നമുക്ക് പല വിധ അസുഖങ്ങളായിട്ട് നമുക്കത് കഴിക്കാനും അത് നമുക്കെടുത്ത് ഫലം വിറ്റ് അതിന്റെ മുതല്ക്കൂട്ടാനും ഒന്നും സാധിക്കത്തില്ല പിന്നെ വരുന്നത് വേനല് ഏപ്രില് മാസത്തിലൊക്കെ എന്നും ഭയങ്കരം ചൂടാണ് ആ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കിണറുകളിലെല്ലാം വെള്ളം വറ്റിപ്പോകും പിന്നന്നേരം ഞങ്ങ ചുമട്ട് വെള്ളം എടുക്കണം ചിലപ്പം ചുമട്ട് വെള്ളവും വാങ്ങാന് പറ്റത്തില്ല ആ സമയങ്ങളിൽ ഒരു ആയിരം ലിറ്റര് ടാങ്കിനെ എണ്ണൂറും ആയിരത്തിയിരുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് ഞങ്ങൾ വങ്ങേണ്ടത് വരുന്നു പിന്നെ മഴയുള്ള സമയത്ത് അതിന് പ്രത്യേകം ഒരു സാഹചര്യം പിന്നെ അത് മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല പിന്നെ മഴയില്ലാതിരുന്നു പിന്നെ ഏപ്രില് മാസങ്ങളിലൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ റബ്ബറാണ് ഇവിടെയേകദേശവും ഉള്ളത് ഈ റബ്ബർ വെട്ടാനിപ്പം മാസങ്ങളായി നടക്കുന്നില്ല അതിന്റെയൊരു ബുദ്ധിമുട്ട് ഞങ്ങളെക്കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ജീവനം നടത്താനായിട്ട് സാധിക്കുന്നില്ല വി പിന്നെ റബ്ബർ റബറല്ലാതെ നമുക്ക് വേറെയേതെങ്കിലും പിന്നെ തൊഴിലുറപ്പിന്റെ പണി നടക്കുന്നുണ്ട് തൊഴിലുറപ്പ് പണി എല്ലാവര്ക്കുമൊന്നും ഇപ്പം ചെയ്യാന് പറ്റുന്നില്ല ചില്ലായെല്ലാ ഇപ്പോഴുമില്ല അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒത്തിരിയും മല മുകളിലൊക്കെയാണ് വീടുകൾ അത് എന്താണ് എ ഏതാണ് എന്നൊന്നും പറയാന് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് സുരക്ഷിതരല്ല പിന്നെ നമ്മുടെ മഴക്കാലത്ത് ഇങ്ങനെ മണ്ണൊലിച്ചു പോയി നമ്മുടെ റബ്ബറിന്റെ മൂടുകളിലൊന്നും മണ്ണില്ല അപ്പം അത് നമുക്ക് കൃഷി ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ തെങ്ങുംതടം എടുത്താലും ഇതെല്ലാം പോകുന്നുണ്ട് ഒലിച്ച് പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ എന്റെ ജീവിതത്തിൽ എന്നൊന്നു പറഞ്ഞാൽ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനും കൊച്ചുങ്ങളെ വിദ്യാഭ്യാസം അത് ത്തിന് ഒത്തിരി ദൂരെ സ്കൂളുകളിൽ വിടണം അതും മഴ കാലവും അല്ലെങ്കില് വേനല്ക്കാലമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് പിന്നെ പ്ലാവ് മാവ് ഇതൊക്കെ ഇപ്പം നശിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നിങ്ങനെ ക് എന്തുവാ കരട് വീഴുന്നു കരിച്ച് തുടർന്നു കൊണ്ട് അത് നമുക്ക് കിട്ടുന്നില്ല മാങ്ങകളൊക്കെ ഉണ്ടായാലും വീണു കിട്ടുന്നില്ല വവ്വാലും ഇങ്ങനെയുള്ള പക്ഷികളെല്ലാം വന്നു തിന്നു പോകുന്നു പിന്നെ നമ്മുടെ പ പരസ്പരം വീടുകളകലങ്ങളിലാണോ ഒത്തിരി അകലങ്ങളിലാണ് ഒറ്റപ്പെട്ട വീടുകളിലാണ് വീടുകളിലാണ് നമുക്ക് ചിലപ്പോൾ പരസ്പരം ഒന്നും സഹായിക്കാന് പോലും ഇല്ലാത്തവസ്ഥ മഴ മൂടിക്കെട്ടി നില്ക്കുന്ന സമയങ്ങളിൽ ഒറ്റപ്പെടുന്ന ആ നിമിഷം വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്നുണ്ടോ എന്നൊരു വിഷമം ഉണ്ട് അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഇത് കലാവസ്ഥ നല്ലതാകാന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഇശയൊ ഈശയോട് പ്രാര്ത്ഥിക്കുന്നു ഇതിന്റെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളാണ് ഒത്തിരി പ്രയാസങ്ങളാണനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതു നല്ല ഒരു കാലാവസ്ഥയ്ക്കു വേണ്ടി ഞങ്ങളാഗ്രഹിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു പിന്നെ ഈ മാസെ ഈ മാസം ഇപ്പം കുറച്ച് വേനലായി നിൽക്കുകയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് ഇടയ്ക്ക് വീണ്ടും മഴ വരുന്നു വെള്ളക്കെട്ടു വരുന്നു അങ്ങനെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്